കോളേജ് ഡിഗ്രി ഉുള്ളവര് സ്വയം മുന്നേറിയെന്ന് എനിക്കിതിവരെ തോന്നിയിട്ടില്ല കാരണം ഒരുപാട് പേര് ഡിഗ്രിയും വച്ചു വീട്ടിലിരിക്കുന്നവരുണ്ട് നല്ല വിദ്യാഭ്യാസമായിട്ടു നല്ല ഡിഗ്രി നല്ല മാർക്കോടെ പാസായി നല്ല ക്വാളിഫിക്കേഷനായിട്ടു പലരും വീട്ടിലിപ്പോഴും വെറുതെ ഇരിക്കുന്നവരുണ്ട് നമ്മുടെ ജോലി സാധ്യത കുറവാണ് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും തൊഴിൽ കുറവാണ് വിദ്യാഭ്യാസമുള്ളവർക്കു ജോലി ഉറപ്പിച്ചൊരു രാജ്യമല്ല നമ്മളത് കാരണം അത്രയും ഒരുപാടു പേര് ഇപ്പോഴും വെറുതേ ഇരിക്കുന്നുണ്ട് ഡിഗ്രിയെല്ലാം കഷ്ടപ്പെട്ടു മൂന്നു നാലു വർഷം ഡിഗ്രിയെല്ലാം കഴിഞ്ഞിട്ടു പിന്നെ അവര് സ്വയം മുന്നേറണമെങ്കിൽ അവർക്ക് പി എസ്സി ലെവൽ ട്രൈ ചെയ്യാം പി എസ്സിയെക്കെ ട്രൈ ചെയ്ത് ഒരുപാട് പേര് മുന്നിലേക്ക് എത്തുന്നുണ്ട് അതിലും അതിലും ഒരുപാടു പേര് താഴേക്കിടയിൽ ഇപ്പോഴും വെറുതേ പല പല പ്രൈവറ്റ് ജോബ്സിനായിട്ടു പോകുന്നവരുണ്ട് പ്രൈവറ്റ് കമ്പനികളില് അവര് പഠിച്ചതല്ലാതെ മറ്റൊരു ഫീൽഡിലേക്ക് ഇറങ്ങി പോവേണ്ട അവസ്ഥയിലാണ് അവർക്കുള്ളത് അങ്ങനെ അപ്പോള് കൂടുതൽ ജോലിസാധ്യതകള് ഉറപ്പാക്കണം എങ്കിലേയുള്ളൂ ഡിഗ്രി കഴിഞ്ഞവര്ക്കും ഒക്കെയായിട്ട് ജോലികള് കിട്ടാൻ സാധ്യതയുള്ളൂ പി എസ്സി കുറച്ചുകൂടെ കൂടുതൽ നിയമനങ്ങള് വരുത്തണം